ഹലോ ജെറ്റ് മാർബിൾ ഷോപ്പാണ് ആ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ആ ആ ആ മാർബിൾ വലിയ സൈസിൽ വരുന്നുണ്ട് പിന്നെ ചെറിയ സൈസും പിന്നെ അതേപോലെ മീഡിയം സൈസൊക്കെ വരുന്നുണ്ട് ഏത് കളറിലാാണ് വേണ്ടത് ആ ഉണ്ട് ഇപ്പോൾ കുറേ ന്യൂ മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കടയിൽ നേരിട്ട് വരികയാണെന്ന് ഉണ്ടെങ്കിൽ ഒക്കെ കാണാം ആ ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് നിങ്ങളിവിടെ വന്നിട്ട് സെലക്ട് ചെയ്താൽ നമ്മൾ ഹോം വീട്ടിലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വന്ന് തരും ആ അതെ അതെ അതെ ഇല്ല ഇല്ല ക്യാഷ് ഒന്നും വേണ്ട ഫ്രീ ആണ്

ആ ഉണ്ടാകും ആ ഓക്കെ പിന്നെ എത്ര വേണ്ടി വരും എത്ര റൂമുകളൊക്കെ ഉണ്ട് എത്ര സ്ക്വയർ ഫീറ്റാണ് വീട് ആ ആ ഓക്കെ

ആ ആ ആ ഉണ്ട് അങ്ങനെ ഫുുള്ളായിട്ടുള്ള സെറ്റിങ്സ് ഉള്ളതും ഉണ്ട് പിന്നെ ഫ്ലോറിംഗിൻ്റെ ഇതിൽ നമുക്ക് കുറച്ച് ഗ്രിപ്പ് ഉള്ള ടൈപ്പ് പുതിയ ഐറ്റംസ് ഇപ്പം വന്നിട്ടുണ്ട് ടൈൽസിൽ നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് പിന്നെ നമുക്ക് ബാത്രൂം ക്ലീൻ ചെയ്യാനുമൊക്കെ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടൈൽസാണ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് ആ ഉണ്ട് നമുക്ക് മരത്തിൻ്റെ മോഡലൊക്കെ പിന്നെ അതാകുമ്പോൾ നമുക്ക് കിച്ചനിലാകുമ്പോൾ അധികം ചെളിയൊന്നും ആകുകയില്ലല്ലോ പെട്ടെന്ന് അറിയുകയില്ലല്ലോ അങ്ങനെ വൈറ്റൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എപ്പഴും റഫ് യൂസ് ചെയ്യുന്ന് പ്ലേസ് അല്ലേ കിച്ചണൊക്കെ അപ്പോൾ

ആ ആ ആ എന്നാൽ ഞാൻ ലൊക്കേഷൻ ഞാൻ ഫോണിലേക്ക് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പുണ്ടല്ലോ അല്ലേ ഇതിലേക്ക് ഞാൻ സെൻഡ് ചെയ്യാം ആ ആ ഓക്കെ ആ താങ്ക്യൂ